എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സംതൃപ്തിപ്പെടാത്ത ഒരു പ്രൊഡക്ട് ഉണ്ടെങ്കിൽ അത് ഈ മേക്കപ്പ് ഐറ്റം ആണ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ കണ്ട ഷെയ്ഡ് അല്ല അത് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് അതുപോലെ അവരുടെ ക്വാളിറ്റി തീരെ മോശമാണ് എനിക്ക് ഇതിനോടകം സ്കിൻ അലർജി വരെ വന്നു കഴിഞ്ഞു ഞാൻ ഇതിനെ പൂർണ്ണമായും സംതൃപ്തനല്ല ഞാൻ ഇതിനോട് എൻ്റെ സംതൃപ്തി ഒരിക്കലും നൽകുന്നുമില്ല ഇത്രയും ഭയാനകമായ തരത്തിൽ എൻ്റെ അലർജി ബാധിക്കപ്പെടുത്തിയ ഈ ഒരു പ്രൊഡക്ടിനെ ഒരിക്കലും ഞാൻ അനുകൂലിക്കില്ല